പ്രിയമുള്ള സുഹൃത്തുക്കളെ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്കൊരു നേരത്തേക്കുള്ള അന്നം നമ്മളുടെ ജീവിതത്തിൽ വേണ്ട പൈസകൾ അങ്ങനെ പലത് പിന്നെ കൃഷി ചെയ്യുന്നത് ഒരു വലിയ നല്ലൊരു കാര്യമാണ് അതായത് നമ്മളുടെ നാട്ടിലുള്ള മൃഗങ്ങൾക്ക് ഉപകാരം നമുക്കുപകാരം എല്ലാവർക്കും ഉപകാരുള്ള ഒരു കാര്യമാണ് കൃഷി കൃഷി ഒരിക്കലും തള്ളി കളയരുത് ഇപ്പത്തെ ജനറേഷനിലുള്ള എല്ലാ പിള്ളേരും കൃഷിയെ തള്ളി കളഞ്ഞുകൊണ്ട് മുന്നേറുകയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല കൃഷി ഉണ്ടെങ്കിലേ നമുക്കൊരു നേരത്തെ അന്നം കിട്ടുകയുള്ളു അപ്പോളെല്ലാവരും അത് ഒന്ന് ശ്രദ്ധിക്കുക കൃഷിയിൽ നിന്ന് ഏറ്റവും കിട്ടുന്ന വിളവെടുപ്പിന് ഒരു ഒരു കോടിക്കണക്കിന് ആൾക്കാരുടെ അന്നമാണ് നമ്മൾ ഒറ്റ അടിക്ക് നികത്തുന്നത് പിന്നെ ഒരിക്കലും അന്നം കളയരുത് പാവപ്പെട്ട കൃഷിക്കാരുടെ വിയർപ്പും അധ്വാനവും ചോരയും എല്ലാം അടങ്ങിയിട്ടുള്ളോര് സംഭവമാണ് നമ്മളുടെ കൃഷി നെല്ല് അപ്പോൾ പ്രിയമുള്ളവരെ കൃഷി തള്ളി കളയാൻ പാടില്ല